എനിക്ക് പിക്നിക്കിനു പോവാൻ ഇഷ്ടമുള്ള സ്ഥലം വണ്ടർലാ ആണ് വണ്ടർല എങ്ങനെയെന്നു വച്ചാൽ ഒരു വാട്ടർ തീം പാർക്കാണ് അപ്പം ചെറിയ പിള്ളേർ മുതൽ വലിയവർക്ക് വരെ കപ്പിൾസും വലിയവർക്കൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ എന്താ പറയുക ഒരുപാട് വാട്ടർ റൈഡ്സും അല്ലാത്ത റൈഡും പിന്നെ എന്താ പറയുക നല്ല ഫുഡ്ഡും പിന്നെ എന്താ പറയുക കുറെ കറങ്ങാനും നല്ല രസമാണ് അവർക്ക് പോയവർക്ക് വീണ്ടും പോകുവാൻ തോന്നും അതായത് അത്രയും നല്ലൊരു സ്പോട്ട് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ പോകുന്നതുവരെ നല്ല രസമാണ് അപ്പോൾ അവിടെ എത്തുന്നതുവരെ വളരെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് എല്ലാംകൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെയെന്ന് വച്ചാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ണ് തള്ളിപ്പോവും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക ഒരുപാട് രസമാണ് കാണുന്നവർക്ക് തന്നെ രസമായിരിക്കും കയറുന്നവരെക്കാളും കാണുന്നവർക്ക് രസമായിരിക്കും പിന്നെ കയറിക്കയിഞ്ഞാൽ ആ ഒരു ഫീൽ പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല ഒരുപാട് ഭയങ്കര രസമാണ് അതൊക്കെ അത് കയറി എക്സ്പീരിയൻസ് ആയവർക്കാണ് അതിൻ്റെ ഒരുപാട് തിരിച്ചറിയാൻ പറ്റുക പിന്നെ എന്താ പറയുക ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഒരിക്കലും മടുപ്പില്ലാത്ത ഒരു പരിപാടിയാണ് നല്ല രസമാണ്